അങ്ങനേ സർക്കാർ പദ്ധതികളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാന മന്ത്രിയുടെ ആവാസ് യോജന എന്നു പറഞ്ഞിട്ടുള്ള പദ്ധതിയാണ് അതായത് തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ കൊടുക്കുന്നൊരു പദ്ധതിയാണത് പിന്നെ നമ്മുടെ കേരള സർക്കാറാണെങ്കിലും പല പദ്ധതികളുണ്ട് ഓരോ എല്ലാവർക്കും തൊഴിൽ കൊടുക്കുന്നൊരു പദ്ധതികളൊക്കെ നടത്തുന്നുണ്ട് പിന്നെ ജോബ് ഫെയർ അങ്ങനത്തെ പരിപാടികളൊക്കെ നടത്തുന്നുണ്ട് പിന്നെ പല റിക്ക്രൂട്ട്മെൻ്റുകളും നടത്തുന്നുണ്ട് പിന്നെ ഇപ്പം എങ്ങനെയാണെന്നു വച്ചാൽ അഗ്നിപഥ് എന്നു പറഞ്ഞിട്ട് അഗ്നിപഥ് എന്നു പറഞ്ഞിട്ട് കേന്ദ്രസർക്കാരിൻ്റെ ഒരു പദ്ധതിയുണ്ട് അതായത് നാല് വർഷം നമ്മൾ അതായത് ആർമിയിലൊക്കെ പണിയെടുത്താൽ മതി അതു കഴിഞ്ഞാൽ നമ്മളെ പിരിച്ചുവിട്ടിട്ട് പുതിയ പുതിയ ആൾക്കാരെ എടുക്കുക അത് ഇപ്പോൾ ഇപ്പോൾ വന്നൊരു പുതിയൊരു പദ്ധതിയാണ് അതായത് പ്രധാന മന്ത്രീൻ്റെ ഒരു പുതിയ പദ്ധതിയാണ് പിന്നെ വേറെ അങ്ങനെ പല പദ്ധതികളും ഉണ്ട് ഇത് എങ്ങനെയാണെന്നു വച്ചു കഴിഞ്ഞാൽ ഓരോരുത്തരെയും വ്യത്യസ്ത തരമായിട്ട് സഹായിക്കും ചിലവരേ ചിലർക്ക് ഗുണമായിരിക്കും ചിലർക്കത് ദോഷമായിരിക്കും ഈ പദ്ധതികളൊക്കെ ഉള്ളത്